നെയ്ത്തും തുന്നലും ഞാൻ ഇത് വരെ ചെയ്തിട്ടൊന്നു ഇല്ല സാധാരണ ഇങ്ങനെ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പം നെയ്ത്തു ചെയ്യുന്ന തുന്നൽ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഒരു ത്രിട്ട് ചർക്കയിൽ നൂൽ കോർത്തു നാച്ചുറൽ കളറൊക്ക മുക്കി ചെയ്യുന്നവർ ഉണ്ട് നിറങ്ങൾ തെരഞ്ഞെടുക്കാറുള്ളത് മീൻസ് ഏതിലും ഇപ്പം എല്ലാം നാച്ചുറൽ ആയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവർ നിറങ്ങളെല്ലാം ഇപ്പം ഏതെങ്കിലും പഴവർഗ്ഗങ്ങളുടേതാവാം പച്ചക്കറികളുടെ സത്ത് എല്ലാം ഊറ്റി എടുത്തു അതിലേക്ക് ഈ ചർക്കയിൽ നെയ്തെടുത്ത തുണികൾ ആ അത് ചർക്കയിൽ നെയ്തെടുത്ത നൂലുകൾ ഇട്ടതിന് ശേഷം ക്ലീൻ ചെയ്യുന്നു അതങ്ങനെയാണ് എന്നാണ് നൂലുകൾ പറയുന്നത് മികച്ച കളർ പാലറ്റ് തെരഞ്ഞെടുക്കാൻ നിർദ്ദേശിച്ചു ഇപ്പം ഏതെങ്കിലും ഒരു ഇതൊക്കെ ചെയ്യ്ന്ന ആൾക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ പങ്കു വച്ചു അത് അങ്ങനെ ഹെൽഫുൾ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറങ്ങൾ ഏതൊക്കെയാണ് എല്ലാ നിറങ്ങളും തന്നെ ഇഷ്ടമാണ് ഒരു നിറം മാത്രം ഫേവറേറ്റ് ആയിട്ടെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ നിറങ്ങൾക്കും അതിൻ്റേതായ കളേഴ്സ് ഒരു കളറ് എല്ലാം ഉണ്ട് കളർ സാധാരണ നിറങ്ങൾ പണ്ടത്തെ രീതിയിലൊക്കെ ആവുമ്പം ചായങ്ങൾ മിക്ക ഇടത്തും ഉണ്ടായിരുന്നത് ഇപ്പം ഒരു വിധത്തിൽ ഓട്ടോമാറ്റിക്ക് ആയിട്ടാണ് കളറൊക്കെ കിട്ടാൻ സാധിക്കുന്നത്